ഹലോ ആഷ്ലി ഞാൻ പുതിയ അപ്പാർട്ട്മെൻ്റിലോട്ട് താമസം മാറി എന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ എനിക്ക് എൻ്റെ പാൻകാർഡിൽ അഡ്രസ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് എന്നൊന്നു നിനക്ക് അറിയാമെങ്കിൽ എനിക്ക് ഒന്നു പറഞ്ഞുതരുമോ എങ്ങനെ ചെയ്യണമെന്ന് ബാങ്കിൽ ഇപ്പോൾ ഏത് ബാങ്കിലാണ് ബാങ്കിൽ പോയിട്ട് അപ്പോൾ എന്തൊക്കെ നമ്മൾ കൊണ്ടു പോകണം എന്തൊക്കെ അവിടെ കാണിക്കണം അപ്പം ആധാർ കാഡ് പാൻ കാഡ് പാസ്ബുക്ക് ഇത്രമാത്രം കൊണ്ടുപോയാൽ മതിയോ

ഓക്കെ താങ്ക് യു ശരി എന്നാൽ